ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും നമ്മുടെ മുന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും എല്ലാം കൂടി ഇപ്പോൾ ഒരുമിച്ചാണ് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കണത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസമൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറിട്ട രീതിയിലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ളവർ വേറെ ക്ലാസിലിരിക്കണം തൊട്ടു കൂടായ്മ തീണ്ടിക്കൂടായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പഠിപ്പിക്കാനൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ വേറെ ടീച്ചർമാറായിരിക്കും ഇപ്പം ഏറ്റവും ലോ ക്ലാസിനുള്ള പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജാതിയിൽ പെട്ടുള്ള ടീച്ചർമാരും കാര്യങ്ങളൊക്കെയായിരിക്കും പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ വിദ്യാഭ്യസവും കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് കുറവായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത് അവർക്ക് നല്ലൊരു വിദ്യാഭ്യസവും കാര്യങ്ങളൊക്കെ വേണം പിന്നെ പല രീതിയിലുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതീൽ വേ വേ വേണ്ടൊരവസ്ഥയാണ് ഇപ്പോൾ ദരിദ്ര കുടുംബത്തിലേക്കൊക്കേയാണെങ്കിൽ നമ്മൾ നല്ല രീതീൽ പ്രോത്സാഹിപ്പിച്ച് വിടുന്ന ഒരു കാലഘട്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതായത് ഗ്രാൻ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മക്ക് ഗ്രാൻറ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു സാമ്പത്തിക സഹായം കൂടിയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു വീട്ടിലേക്ക് ഉള്ള ഒരു മുതൽക്കൂട്ട് ആയിട്ടാണ് ഈ ഗ്രാൻഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്